കായിക വിനോദങ്ങൾ നമ്മുടെ പിരിമുറുക്കങ്ങൾ മാറ്റാനും ആസ്വദിക്കാനൂള്ള ഒരു വളരെ നല്ല ഒരു വഴിയാണ് കാരണം എന്താ വച്ച് കഴിഞ്ഞാൽ മറ്റ് കായിക വിനോദങ്ങളായ ഫുട്ബോൾ ക്രിക്കറ്റ് ഹോക്കി ടെന്നീസ് ബാഡ്മിൻറ്റൺ എന്ന് പറയുന്ന നിരവധി കായിക വിനോദങ്ങൾ മനുഷ്യൻമാരുടെ പിരിമുറുക്കങ്ങളെ മാറ്റാൻ വളരെയധികം സഹായിക്കുന്നു ഒരു ഫുട്ബോൾ കളിക്കുകയാണെങ്കിൽ ആ ഫുട്ബോൾ നമ്മൾ കളിച്ച് കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വളരെയധികം ചിന്തിക്കുകയാണ് നമ്മുടെ കയ്യിലുള്ള പന്തും നമ്മൾ അടുത്തതായി ആർക്ക് നൽകണം എന്ന് നമ്മൾ വളരെ പെട്ടന്ന് തന്നെ തീരുമാനിക്കുന്ന ഒരു ഗെയിമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് സോ നമ്മൾ നമ്മളുടെ മറ്റ് ചിന്തകളിൽ നിന്നും നമ്മളുടെ ഈ ഫുട്ബോൾ അല്ലെങ്കിൽ നമ്മളുടെ ഈ കായിക വിനോദം എന്ന ഒരു ഒരൊറ്റ വിനോദത്തിലേക്ക് നമ്മൾ ചിന്തകളെ വന്ന് ഉൾകൊള്ളിക്കുവാൻ നമ്മൾക്ക് കഴിയുന്നു ഈ ഉൾക്കൊള്ളിക്കുന്നതിലൂടെ നമ്മളുടെ മറ്റ് കാര്യങ്ങൾ നമ്മൾ മറക്കുകയും നമ്മളുടെ പിരിമുറുക്കങ്ങൾ മാനസികമായ പിരിമുറുക്കങ്ങൾ ഇന്നും നമ്മൾക്ക് വളരെ അധികം ഒരു സ്വാന്തനം നൽകുന്ന വിനോദമാണ് കായിക വിനോദം ഇനി നമ്മൾ നമ്മുടെ ക്രിക്കറ്റിൻ്റെ കാര്യമെടുത്താൽ നമ്മൾക്ക് മറ്റൊരാൾ പന്ത് എറിയുമ്പോൾ ആ പന്ത് എങ്ങനെ വരുന്നു എന്ന് നമ്മൾക്കറിയില്ല ആ പന്ത് തിരിയുമോ അല്ലെങ്കിൽ നമ്മളുടെ മുകളിലൂടെ പോകുമോ അല്ലെങ്കിൽ ആ പന്ത് എങ്ങനെ പോകും നമ്മളുടെ പുറകിലൂടെ പോകുമോ എന്നൊന്നും നമ്മൾക്കറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പന്തിലേക്ക് മാത്രം നമ്മളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിലൂടെ നമ്മൾ നമ്മളുടെ പുറത്തുള്ള കാര്യങ്ങളെ എല്ലാം വളരെ അധികം പെട്ടന്ന് തന്നെ മനസ്സിലാക്കാതെ നമ്മൾ നമ്മളുടെ ഈ ഒരു ശ്രദ്ധയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മളുടെ പിരിമുറുക്കങ്ങളെല്ലാം ഒഴിവാക്കാൻ നമ്മളെ കായിക വിനോദങ്ങൾ സഹായിക്കുന്നു ഈ കായിക വിനോദത്തിൽ നിന്നും മറ്റൊരു ഉദാഹരണമാണ് ടെന്നീസ് എന്ന് പറയുന്നത് ഈ ഒരു കായിക വിനോദത്തിലൂടെ നമ്മൾ നമ്മളുടെ ശ്രദ്ധ ഒരേ ഒരു ദിശയിലേക്ക് മാത്രം ഒതുക്കുന്നതിലൂടെ നമ്മളുടെ കാര്യങ്ങൾ എല്ലാം നമ്മൾ മറക്കുന്നു നമ്മളുടെ പുറത്തുള്ള ജീവിതം നമ്മളുടെ കൂട്ടുകാർ വീട്ടുകാര് കൂട്ടുകാര് നാട്ടുകാര് എല്ലാവരുടേയും കാര്യങ്ങൾ നമ്മൾ മറക്കുകയും നമ്മൾ നമ്മളുടെ ഈ ഒരു വിനോദത്തിലേക്ക് മാത്രം നമ്മളുടെ മൊത്തം ജീവിതത്തെ ചുരുക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ നമുക്ക് വളരെ അധികം ഒരു പിരിമുറുക്കം മാനസിക പിരിമുറുക്കത്തിൽ നിന്നും പുറത്ത് വരാനുള്ള ഒരു താക്കോൽ പഴുതാണ് കായിക വിനോദം എന്ന് പറയുന്നത് ഈ കായിക വിനോദം മനുഷ്യ മനസ്സിൻ്റെ മാനസിക പിരിമുറുക്കങ്ങൾ മാറ്റാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്